നമ്മുടെ കേരളത്തിൽ പ്രധാനമായും മൂന്നു മതങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാം മതവും ഒന്നാണ് പറയുന്നതെങ്കിലും ശബരിമല വിഷയം മുസ്ലിംസ്കാരുടെ പള്ളിയുടെ വിഷയം പള്ളിയിലാണെങ്കിലും മുസ്ലിം സ്ത്രീകളെ കയറ്റുന്നില്ല ഇവിടെ ശബരിമലയിൽ ആണെങ്കിൽ സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഇതെല്ലാം ഇപ്പോൾ തെയ്യം എടുക്കുകയാണെങ്കിൽ തന്നെ കണ്ണൂരിൻ്റെ വലിയൊരു കലാരൂപമാണ് അതിൽ എല്ലാ മതവിശ്വാസങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മതത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് അവർ അത് ചെയ്യണത് ക്രിസ്ത്യാനികളെ എടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികളെ ആണ് നമുക്ക് ആദ്യമായിട്ട് ഇവിടെ റബ്ബർക്കൃഷി അങ്ങനത്തെ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അവർ ഒരുപാട് മുന്നേറ്റങ്ങളെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ രീതിയിൽ ക്രിസ്ത്യൻസും വളരെ ഇതാണ് മുസ്ലിംസാണെങ്കിൽ ഇപ്പോൾ അതേപോലെ അപ്പം നമ്മളേത് മതമായാലും മതത്തിന് അതിൻ്റേതായ രീതിയിൽ മുന്നോട്ടു കൊണ്ടുവന്ന് വേറൊരു വിവേചനമില്ലാതെ മുന്നോട്ടു പോണതായിരിക്കും എപ്പോഴും നല്ലത് ഇന്ന മതമാണ് അല്ലെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കുക ഈ മതത്തിലെ എല്ലാ മതവും ഒന്ന് തന്നെയാണ് എല്ലാ മതവും അവരുടേതായ രീതിയിലുള്ള ഓരോ പ്രോത്സാഹനങ്ങൾ തരുന്നുണ്ട് അത് കണ്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ പോയാൽ മതങ്ങൾ എന്നും സൗഹാർദത്തോടും സന്തോഷത്തോടും ഇരിക്കാൻ പറ്റും